ഇപ്പോൾ ഞാനെൻ്റെ ട്രയൽ ട്രയൽ റണ്ണുകളിൽ നമുക്കിപ്പം എന്തെങ്കിലും ഇടവേള നമുക്കിപ്പം പെട്ടന്ന് വെള്ളം കുടിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ട്രാക്കൊന്ന് ചെയ്ഞ്ച് ചെയ്തിട്ട് നമ്മൾ ഓടാറുണ്ട് അപ്പം നല്ല രീതീലുള്ള മാറ്റം നമുക്ക് ഇണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടീട്ട് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടൈമ് വെച്ച് ഓടാറുണ്ട് നമ്മളിത്ര സമയത്തിനുള്ളിൽ കറക്റ്റായിട്ട് എത്താൻ വേണ്ടീട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് അപ്പം നല്ല രീതീയിലുള്ള പെർഫോമൻസ് നമുക്ക് കാഴ്ച വക്കാനും ഓട്ടത്തിൽ ചിലപ്പോൾ ഫസ്റ്റ് കാര്യമോ ഫസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്താൻ വേണ്ടീട്ട് നമ്മളങ്ങനെയൊന്ന് ചെയ്ഞ്ച് ചെയ്യാറുണ്ട് ഇനി ഡെയിലി നമ്മൾ പ്രാക്റ്റിസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള കാല് വഴങ്ങുക കൈ വഴങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഓടാനുള്ള കഴിവ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും നമ്മുടെ കാലും കയ്യും എല്ലാ മെയ് വഴക്കവും എല്ലാ കാര്യങ്ങളും നല്ല രീതീയിൽ വരും അപ്പോൾ നമുക്കെന്ത് ചെയ്യാം നമ്മുടെ വർക്ക് ഔട്ട്കള് കാര്യങ്ങളൊക്കെ നല്ല രീതീയിൽ ചെയ്യാൻ വർക്ക് ഔട്ട് മീൻസ് നമ്മൾ നല്ല രീതിയിൽ ഓടാനുള്ള ഒരു ഹെൽത്തിക്ക് വേണ്ടീട്ട് കാല് കയ്യ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതീയിൽ മെയ് നമ്മുടെ അതായത് നമ്മുടെ ദേഹം മൊത്തം നല്ല രീതീയിൽ വഴങ്ങണം നമ്മുടെ മനസ്സ് ഒരുമിക്കുന്ന പോലെ ദേഹം നല്ലോണം വഴങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒന്നാമതെത്താൻ കഴിയുള്ളൂ